ആ ഹലോ ടീച്ചറേ നമ്മൾ കയിഞ്ഞ ദിവസം പറഞ്ഞ ഇഷ്യുയില്ലേ ആ കുട്ട്യള് തമ്മിൽ ഇപ്പളും പ്രശ്നം നടന്നോണ്ടിരിക്കുവാ നമ്മൾ എന്താ ചെയ്യേണ്ടത്

അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നതിന് അവരൊരു വിലയും തരാത്ത രീതിക്കാണ് ഇവിടെ ഭയങ്കര അഗ്രെസ്സിവായിട്ടാണ് ക്ലാസ്സിൽ പെരുമാറുണത് ഒരു ടീച്ചറെന്താന്ന് ടീച്ചറെന്ന നിലക്ക് നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് നോക്കീട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ യാതൊരു നിവർത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഞാനിപ്പം മാമിൻ്റെ മുമ്പിൽ പരാതിയായിട്ട് വന്നിരിക്കുന്നത്

വിളിച്ചിരുന്നു അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ അവരതൊന്നും എന്താ ഞാൻ പറയ്കാ യാതൊരു മൈൻഡും തരുന്നില്ല പിന്നിപ്പം നമുക്കവരുടെ വീട്ടുകാരെ വിളിപ്പിക്കേണ്ടൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അതിപ്പൊയിനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടോന്നെനിക്കറിഞ്ഞൂടാ എന്നാലും ഒന്ന് ഒരു ലാസ്റ്റ് വാണിങ്ങ് ഇല്ലല്ല ഈ കാര്യം മാത്രം ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിപ്പയിത് ലാസ്റ്റ് വാണിങ്ങ് എന്നുള്ള നിലക്ക്

ആ ആ ആ വിളിക്കേണ്ടി വരും മിക്കവാറും ഇപ്പം ക്ലാസ്സിൽ ഭയങ്കര നമുക്ക് മറ്റു കുട്ടികൾക്ക് പോലും എന്താ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത രീതിക്ക് അവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത് നമ്മൾ പറയുന്നതും കേൾക്കുന്നില്ല ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ഭയങ്കരൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ ട്വൽത്ത് ബി ആ നമുക്ക് ലാസ്റ്റ് വാണിങ്ങെന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊടുത്ത് നോക്കാം ആ ആ വേണ്ടി വരും അതെയതെ

അതെയതെ അതെ ആ ശരി ടീച്ചറെ എന്നാൽ